ഇപ്പം മൊബൈൽ ഗെയിമിൻ്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് കളിയ്ക്കാൻ ഇപ്പോൾ സുഖമാണ് ഈ ഫോണില് മൊബൈൽ ഫോണില് കളിക്കാന് ഇല്ലെങ്കിൽ നമ്മള് പാമ്പും കോണിയും ഒക്കെ കളിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു കല്ല് ആയിട്ട് കളിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ഒക്കെ നമ്മള് കല്ല് ആയിട്ടും കല്ലിനു കല്ല് ആയിട്ട് ആണ് കൂടുതലും കളിച്ചിരുന്നെ കല്ല് മാർബിളിൻ്റെ കഷ്ണം കണ്ടം കൊണ്ട് ഇങ്ങനെ അക്ക് കളിക്കാറ് അങ്ങനെ ഉള്ള കളികളൊക്കെ കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും ഇപ്പോൾ വീഡിയോസ് പിന്നെ വീഡിയോസ് വീഡിയോസ് കാണുന്നതിനും ഗെയിം കളിക്കാനും ഒക്കെ മൊബൈൽ ഫോൺ ആണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണ്ടൊരു പ്രശ്നം മാത്രം ഒള്ളൂ എന്നാലും ആദ്യത്തേതിനെ കാട്ടും ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഫോൺ ഉള്ളതുകൊണ്ട് ഫോണിലൂടെ നമുക്ക് ഒരുപാട് ഗെയിമുകൾ ഉണ്ട് അതിനുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഗെയിം തന്നെയാ കളിക്കാറുള്ളത് ആദ്യകാലത്തെ പോലെ കല്ലുവെച്ചിട്ടോ മണ്ണിലോ അങ്ങനെ ഒന്നും കളിക്കാറില്ല ഇപ്പോൾ ഒഴിവു സമയം കിട്ടുമ്പം വേഗം മൊബൈൽ ഫോണിലാണ് എല്ലാവരും ആദ്യം കുത്തി ഇരിക്കുന്നത്